ഹലോ ഇത് അൾഡ്രിയാനല്ലേ ഞാൻ മറ്റൂരീന്നാണ് വിളിക്കുന്നത് ആർദ്രയാണ് സംസാരിക്കുന്നത് നമ്മളൊന്നൊന്നര മണിക്കൂറായിട്ട് റെസ്റ്റൊറൻ്റീന്ന് നമ്മൾ ഒരു കുഴിമന്തി ഓർഡർ ചെയ്തിരുന്നു അപ്പം അതിൻ്റെ ഡെലിവറിയും കാര്യങ്ങളും ഒന്നും നമുക്കറിയാൻ പറ്റുന്നില്ല എപ്പോഴാണ് വരിക എങ്ങനെയാണ് ഒരു ഡീറ്റെയ്ലും നമുക്കറിയാൻ പറ്റാത്തതു കൊണ്ട് സ്റ്റാറ്റസ് വർക്കിങ്ങല്ല അപ്പം അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് പേയ്മെൻ്റിൻ്റെ കാര്യമൊക്കെ ഒന്നു ചെക്ക് ചെയ്യണമായിരുന്നു പിന്നെ ഒത്തിരി നേരമായിട്ട് കിടന്നു വിളിക്കുവാ അതുപോലെ തന്നെ ആ ഡെലിവറി ബോയ് ആയിട്ട് കോൺടാക്ട് ചെയ്യാനുള്ളൊരു നമ്പർ നമുക്കില്ല നമുക്ക് കാണുന്നില്ല അതുപോലെ അവർ എവിടെ എത്തി എന്നുള്ളതും കാണുന്നില്ല ഇനിയിപ്പത് നമ്മളെങ്ങോട്ടു വന്ന് പിക്ക് ചെയ്യണമെന്നും അറിയത്തില്ല അപ്പം അതു കാരണം കൊണ്ട് കോൺടാക്ട് ചെയ്തതാണ് പിന്നെ ക്യാഷ് ആണെങ്കിൽ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറിയാണ് പേ ചെയ്തു പറഞ്ഞത് ഇനിയിപ്പം മറ്റേ ജി പേ ചെയ്യണോ ഓൺലൈൻ പേയ്മെൻ്റ് നടത്തണോ എന്തുവ എന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചയാ അപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഒന്നു കറക്റ്റാക്കി നമുക്ക് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പിന്നതുപോലെ തന്നെ ഞങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയല്ലേയെന്ന് ഒന്ന് ചെക്ക് ചെയ്യാമോ